ഹലോ ആ ആ പറഞ്ഞോളൂ ആ ആ ഫർണിച്ചർ ഫർണിച്ചർ കടയാണ് ആ തേക്കുണ്ട് പ്ലാവുണ്ട് മാവുണ്ട്

ഒരു ഇപ്പ ഒരു ഒരു മുപ്പതിനായിരം വരെ വില കുറച്ചു തരാം മുപ്പതിനായിരം തരാം തരാം പത്ത് പത്ത്

പത്ത് പത്ത് പീസായി ആണോ ആ ആണോ എന്നാൽ ഒരു ആ എന്നാൽ ഒരു മുപ്പത് വേറെ പ്ലാവിലേക്ക് ആണെങ്കിൽ കുറച്ച് അയ്യായിരം അഞ്ചിനൊക്കെ തരാം അഞ്ച് നാല് ഇതിനൊക്കെ തരാം പ്ലാവ്

ആ ഇത് മഹാഗനിയുണ്ട് ആ ആ ആ എന്നാൽ ന്നാ എന്നാൽ ഒരു കാര്യം ചെയ്യൂ ഈ ഈ പറഞ്ഞ വിലക്കങ്ങു തരാം മേശ ആ മേശയുണ്ട് പ പറ്റും ആ പിള്ളേർക്ക് പഠിക്കാനുള്ളത് അല്ലേ പിള്ളേർക്ക് പഠിക്കാനുള്ളതല്ലേ ആ ബു ബുക്കൊക്കെ വെക്കാനുള്ളത് ഉണ്ട് തേക്കിൻ്റെ ഉണ്ട് മറ്റേ പ്ലാവിൻ്റെ ഉണ്ട് മാവിൻ്റെ ഉണ്ട് പത്തായീ ആ പാവിൻ്റെ പ്ലാവിൻ്റെ ഗിരി വരണം ആ വരാം അതിനെന്നാ ആ കസരയൊക്കെ ഇപ്പം ഒ ഒരെണ്ണം ഏ ആ ആ നമുക്ക് വില വില കുറച്ചൊക്കെ എടുക്കാം ഇവിടെ വന്നാൽ വന്നാൽ നോക്കിയിട്ടെ വെ വിലയൊക്കെ കുറച്ചു തരാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം അ എന്നാലും ആ ഒരു ഒരു ഒരു കസേരയൊക്കെയൊരു ചേട്ടനായതു കൊണ്ടൊരു അഞ്ഞൂറ് തന്നാൽ മതി പോകട്ടെ ഒരു കസേരയുടെ വില കുറച്ചിരിക്കാ തീരെ കുറച്ചിരിക്കാ ഇനി നമുക്ക് നഷ്ടമാണ് എനിക്ക് നഷ്ടമാണ് എങ്കിൽപ്പോലും ചേട്ടൻ ഇത്രയൊക്കെ ആ ഇത്രയൊക്കെ എടുക്കുമ്പോഴേ ഞാൻ അതിൻ്റെ കുറച്ചേ ആ ആ ആ അത് ആ വീട്ടി എന്നാ കത്തി കത്തിയില്ല കത്തിയിലുണ്ട് അല ആ അലമാരിയുണ്ട് അലമാരി തേക്കിൻ്റെയുണ്ട് ഡബിൾ ഡോറിൻ്റെ ഉണ്ട് ഒറ്റ ഡോറിൻ്റെ ഉണ്ട് ഈ പാത്തേടെ ഉണ്ട് തേക്കിൻ്റെ ഉണ്ട് ആ ആ സ്റ്റീലുണ്ട് ആ സ്റ്റീലൊക്കെ സ്റ്റീലൊക്കെ ഒരു ആറേഴാകും ഞാനത് കുറച്ചു തരാം ആ വില കുറച്ചു തരാം ആ ആ വന്നാൽ മതി കടയിലോട്ട് വന്നാൽ മതി കട അറിയാമല്ലോ അല്ലേ ആ അങ്ങോട്ട് വന്നാൽ മതി കുഴപ്പമോ ആ ജങ്ഷനിൽ അങ്ങോട്ട് വന്നാൽ മതി ഓക്കെ ഓക്കെ